ആ എനിക്ക് ഞാനിപ്പോൾ വിളിക്കുന്നത് മദ്രാസിന്നായിരുന്നു അപ്പോൾ എനിക്ക് വയനാട്ടിൽ കുറച്ചു സ്ഥലങ്ങൾ കാണാൻ വേണ്ടീട്ടായിരുന്നു ആ അപ്പോൾ ഇത് ട്രാവൽ ഏജന്റല്ലേ ആ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ എല്ലാ സ്ഥലവും കാണിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ടോ അവിടെ കൊണ്ടുപോകാൻ പറ്റും അല്ലെ എനിക്ക് കൂടുതലായിട്ട് കാണേണ്ടത് ചെമ്പ്ര പീക്ക് ആണ് ഓക്കേ ഓക്കേ എനിക്കതിൻ്റെ മേളിലേക്ക് വണ്ടിയും കൊണ്ട് പോകാനുള്ള സൗകര്യമെന്തെങ്കിലും ഉണ്ടോ ഓക്കേ ഓക്കേ ഇപ്പോൾ വണ്ടിയുംകൊണ്ട് പോകാൻ പറ്റിയ ഞാൻ ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളു അതാ ഞാൻ ചോദിച്ചത് വണ്ടിയും കൊണ്ട് പോകാൻ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ പിന്നെ വേറേതു സ്ഥലങ്ങളാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് വണ്ടി കൊണ്ടുപോകാൻ പറ്റും അല്ലെ അവിടെ കാണാൻ എങ്ങനെയുണ്ട് വ്യൂവോ വ്യൂ പോയിൻറ് ആണോ അത് ഏർലി മോർണിംഗിൽ തന്നെ പോണം അല്ലെ ഓക്കേ ആ ഓക്കേ ഓക്കേ ഓക്കേ ഇപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ കൂടെത്തന്നെ വരുവോ ഞങ്ങൾ വണ്ടിയും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെത്തന്നെ വരുവോ അതോ വേറെ വണ്ടിയിൽ വരുവോ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഓക്കേ ഓക്കേ അപ്പോൾ നിങ്ങളെന്നാൽ എന്തായാലും അവരെ ഒന്നു കൂടെവിടണം ആണോ ആ പിന്നെ എങ്ങനെയാന്നുവെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിലോ നമുക്കിപ്പോൾ അവർക്കെല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളുമൊക്കെ അറിയാല്ലോ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അവരെ എന്തായാലും അവരെ കൂടെ നിർത്താം പിന്നെ അവർക്കുള്ള പേയ്മെന്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ആ റേറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങളൊന്നു വാട്സാപ്പ് ചെയ്യണം ഓക്കേ എന്നാൽ ഞാനീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കേ എന്നാൽ